ഹലോ അതെ എടാ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ട് അതാണെങ്കിൽ എനിക്കാണെങ്കിലിതിനെപ്പറ്റി കാര്യമായിട്ടുള്ള ഗ്രാഹ്യോന്നും ഇല്ല അത്യാവശ്യം ഒരു വലിയ കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതിയാവും നമ്മൾ അത്യാവശ്യം ഫോൺ നമ്മുടെ ഫോണിലൊക്കെയൊരു കോളൊക്കെ വന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടീട്ട് പറ്റണം പിന്നെ പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണിക്കുന്നതാണെങ്കിൽ നല്ലതായിരുന്നു അത്യാവശ്യം ഹാർട്ട് ബീറ്റ് കാണാനും പിന്നെ ഷുഗറൊക്കെ അതിൻ്റെ അളവൊക്കെ അറിയാൻ വേണ്ടീട്ടൊക്കെ പറ്റുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് പൊതുവായിട്ടുള്ള സ്മാർട്ട് വാച്ച്കളിൽ പിന്നെ നമ്മുടെ നടത്തത്തിൻ്റെ വേഗം പിന്നങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയായിട്ട് അത്യാവശ്യം നമ്മുടെ ബഡ്ജെറ്റിൽ ഒതുങ്ങണത് ആയിരിക്കണം ഒരുപാട് പണം കൂടിയതിൻ്റെയൊന്നും ആവശ്യം ഇല്ല അങ്ങനെ വലിയ വലിയ വലിയ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ വലിയകാര്യം ചെറിയകാര്യം നമ്മുടെ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്നൊരു സംഭവം മതി അപ്പോഴാണെങ്കിൽ വലിയ ബ്രാൻഡിൻ്റെ ഒന്നും ആവശ്യം ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ അങ്ങനെയൊരു വാച്ച് മേടിക്കാൻ വേണ്ടീട്ടൊക്കെയാണെങ്കിൽ ഒന്ന് സഹായിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു